മതപരമായ ഉത്സവങ്ങൾ ഒരുപാടുണ്ട് പിന്നെ പ്രദേശത്ത് ആണെങ്കിൽ അമ്പലത്തിനോട് അനുബന്ധിച്ച് ഹിന്ദുക്കളുടെ ഉത്സവം അത് തന്നെയാണ് പ്രധാനമായിട്ടും ഉള്ളത് പിന്നെ പ്രദേശത്ത് മാത്രമല്ലാതെ ഹിന്ദുക്കളുടെ ഇടയിൽ നമ്മുടെ കേരളത്തിൽ ഹിന്ദുക്കളുടെ ഇടയിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് വിഷു നമുക്ക് എല്ലാവർക്കുമറിയാം വിഷുവിന് നമ്മൾ പടക്കം പൊട്ടിക്കാറുണ്ട് എൻ്റെ പ്രദേശത്ത് മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും വിഷു എന്ന മലയാളികൾ ആഘോഷിക്കുന്ന വിഷു എന്നൊരു ഉത്സവം നടക്കുന്നുണ്ട് ഇപ്പോൾ വിഷുവിൻ്റെ ഏറ്റവും വലിയ ഒരു ആകർഷിണീയത എന്ന് പറയുമ്പോൾ കണി നമ്മൾ രാവിലെ എണീറ്റ് അഞ്ച് മണിക്ക് എണീറ്റ് നമ്മളൊരു സുപ്രഭാതത്തിൽ കണ്ടിരിക്കേണ്ട കണി കണ്ട് കഴിഞ്ഞാൽ ആ ദിവസം നന്നായി എന്ന് നമ്മൾ കേൾക്കുന്നതു പോലെ നല്ലൊരു കണി കാണുക പടക്കം പൊട്ടിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് വിഷുവിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്ന രണ്ട് കാര്യങ്ങൾ